ഹലോ ഇത് കണ്ണൻ ദേവൻ ചായ പൊടീൻ്റെ ഓഫീസ് അല്ലെ ഇത് കൂത്ത്പറമ്പ് നിന്ന് ഒര് റീറ്റേലായിട്ട് കൊടുക്കുന്ന ഒരാളാണ് ചായപ്പൊടി നമുക്ക് നമ്മള് വാങ്ങുന്നത് പൊടി ഇപ്പോൾ വിലയും അവര് കൂടുതലാക്കി അത് അതിന് ഒര് ഗുണനിലവാരവും ഇല്ല അപ്പം എല്ലാവരും മോ മോശമായിട്ട് പറയുന്ന് ഇപ്പോൾ വാങ്ങുന്നവര് ആ അപ്പം നമ്മൾക്ക് നിങ്ങള് പൊടി തരാൻ പറ്റുവോ ഇപ്പം നമുക്കിപ്പം ഒര് കിലോൻ്റെ പായ്ക്കറ്റ് ഒര് നൂറ് പായ്ക്കറ്റും ഒര് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു അമ്പത് പായ്ക്കറ്റും ആദ്യം വങ്ങാമെന്നു വിചാരിക്കുന്നു പിന്നെ അത് നമ്മള് കൊടുത്തിട്ടാകുമ്പോൾ അതിന് നല്ല അഭിപ്രായമാണ് പറയുന്നുണ്ടെങ്കില് നമുക്ക് സ്ഥിരായിട്ട് നിങ്ങള് നിങ്ങളുടെ അവിടുന്നാണ് വാ വങ്ങാനുള്ള ഒര് ഇതിലാണ് ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ വില പറഞ്ഞോ നമുക്ക് വില കുറച്ച് കൂടിയാലും ഒരു ഗുണനിലവാരം വേണമെന്നേയുള്ളു കുറച്ച് പൈസ ഒ ഒര് കിലോൻ്റെ പായ്ക്കറ്റ് ആ അപ്പോൾ പിന്നെ നമ്മള് എന്നാല് അങ്ങോട്ടേക്ക് വാങ്ങാൻ എങ്ങനെയാണ് നിങ്ങളിങ്ങോട്ടേക്ക് ഇത് അയച്ച് തരുമോ അല്ലെങ്കില് നമ്മള് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരണോ

ആ അപ്പോൾ പിന്നെ നമ്മള് അങ്ങോട്ടേക്ക് വന്നിട്ട് വാങ്ങുന്നത് അല്ലേ നല്ലത് എന്നാൽ പിന്നെ നമ്മളങ്ങോട്ടേക്ക് വരാം ആ വരുന്ന ദിവസം വിളിക്കാം ശരി എന്നാല്